കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വസ്ത്രധാരണയുടെ കാര്യത്തിലും ചരിത്രത്തിൻ്റെ കാര്യത്തിലും ഭൂഘടനയുടെ കാര്യത്തിലൊക്കെ വ്യത്യസ്തമായ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം കുന്നുകളുണ്ട് രാഷ്ട്രീയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം തൊട്ട് രാഷ്ട്രീയ കയ്യാംകളി രാഷ്ട്രീയ പിരിമുറുക്കം എല്ലാം കൊണ്ടും ഇതാക്കുന്ന വള വർഗീയത നിറഞ്ഞു നിന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പം കുറച്ച് കുറവാണ് വർഗ്ഗീയ സംഘർഷം ഇല്ലയെന്നല്ല കണ്ണൂരു ഭാഗങ്ങളിൽ ഇപ്പോഴും വർഗ്ഗീയ സംഘർഷം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയോ യുവ ജനങ്ങൾ മരണമടഞ്ഞിട്ടുണ്ട് ഈ വെറുതേ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അപ്പം നമ്മളെ നമ്മൾ ഈ ചരിത്രത്തിൽ അതൊക്കെ ഒരു വളരെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ വരും തലമുറയെയും സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ പിന്നെ ചില രാഷ്ട്രീയതയും വര് വളർന്ന് വരുന്ന വർഗ്ഗീയതയും ആണ് നമ്മൾ മക്കളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി അവരെ നേരായ വഴിയിലേക്ക് നമ്മൾ വളർത്തേണ്ടത് ബാക്കിയെല്ലാം കുന്നുകളുണ്ട് പിന്നെ നമുക്ക് പിന്നെ പുഴകളുടെ അനുഷ് പുഴകൾ നല്ല രീതിയിലൊഴുകിക്കൊണ്ടിരുന്ന പുഴകൾ പാൽസി പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ഇട്ട് നശിപ്പിച്ചു കളയുന്ന ഒത്തിരി സന്ദർഭങ്ങൾ നമ്മൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ മാലിന്യ കൂമ്പാരങ്ങൾ എല്ലാം ഉണ്ട്